ഹലോ ഹലോ ആ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ സാർ നമ്മൾക്കിപ്പോൾ സീ ഫുഡ്ഡ് നമ്മൾക്ക് ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ കൂടുതല് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകണം അവിടെയാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ സാറ് ഓൾമോസ്റ്റ് കേരളം മൊത്തം ഇതാക്കുന്നുണ്ടോ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണോ ആ ഓക്കെ ആ ഓക്കെ സാർ ആ അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയത് കോഴിക്കോട് വേണമെങ്കിൽ ചെയ്ത് തരാം പിന്നെ ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് കൂടുതലും വരുന്നത് സീ ഫുഡ്ഡൊക്കെ നമ്മള് കൂടുതലും റെഫറ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് അപ്പോൾ സാറേ എത്ര മെമ്പേഴ്സാണ് ഉണ്ടാവുക ആറ് പേരുണ്ടാവും അല്ലേ നമുക്കെങ്ങനെയാണ് അത്യാവശ്യം ലക്ഷുറി ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമോ ആ വേണ്ടല്ലേ ഓക്കേ അപ്പോൾ നമ്മൾക്ക് വല്ല സ്റ്റാർ പ്രോപ്പർട്ടിയോ അങ്ങനെയെന്തെങ്കിലും നോക്കാം സാറിന് എങ്ങനെയാണ് ബഡ്ജറ്റ് അങ്ങനെയെന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ ഇല്ല ഓക്കെ ഓൾമോസ്റ്റ് ആ ആ ഫുള്ളും ഓക്കെ എന്നാൽ ഓക്കെ സാർ അപ്പോൾ നമ്മള് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റൂംസും കാര്യങ്ങളൊക്കെ സാറിന് വാട്സആപ്പ് ഈ നമ്പറിലുണ്ടെങ്കിൽ ഞങ്ങള് കാണിച്ച് തരാം ഫോട്ടോസ് ഞങ്ങള് സെന്റ് ചെയ്യാം പിന്നെ സീ ഫുഡ്ഡ് ഏതൊക്കെയാണ് ഫിഷ് ഐറ്റംസാണ് നമുക്ക് വരിക അതൊക്കെ നോക്കിയിട്ട് സാറിന് എന്നത് വാട്സാപ്പ് ചെയ്തേക്കാം സാറ് ഏതൊക്കെ ഫുഡ്ഡ് ഐറ്റംസാണ് വേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മള് അറേഞ്ച് ചെയ്ത് തരാം

ആ ഓക്കെ സാർ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തെരാം പിന്നെന്തായിരുന്നു നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കുക്കുകള് അവൈലബിൾ ആണ് അപ്പോൾ സാറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടേതെങ്കിലും കുക്കിനെയോ കാര്യങ്ങള് എന്തെങ്കിലും നമ്മള് പറഞ്ഞ് വിടേണ്ട ആവശ്യമുണ്ടോ സീ ഫുഡ്ഡിൻ്റെ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആണല്ലേ ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ നമ്മള് ആ ആ ഓക്കെ ആ ഓക്കെ ആ സീ ഫുഡ്ഡ് ഓക്കെ അപ്പോൾ നമ്മൾക്കിപ്പോൾ ചെയ്ത് തരാൻ പറ്റുന്നൊരു കുക്കിനെ ആ ആ ഓക്കെ ആ നിങ്ങള് എങ്ങനെയാണപ്പോൾ അവിടെ നിന്ന് വരുന്നത് പ്ലെയ്നിലോ അങ്ങനെ ട്രെയിനിലോ അങ്ങനെയെന്തെങ്കിലും ആണോ അതോ ടാക്കാ ഓ ആയിരിക്കും അല്ലെ അപ്പോൾ നിങ്ങള് അപ്പോൾ ആ വരാനാണ് ആ ഓക്കെ സാറപ്പോൾ ക്യാബ് അങ്ങനെയെന്തെങ്കിലും അറേഞ്ച് ചെയ്യണ്ട ആവശ്യം എന്തെങ്കിലും നമ്മള് ചെയ്ത് തരേണ്ടതായിട്ട് വരുമോ ആ ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മുടെ കുക്കിനെ ആ കൂടെ കൊണ്ടുവരാൻ പാറ്റുമായിരിക്കും അല്ലേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല കൂടെകൂട്ടിക്കൊള്ളാം അല്ലേ അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ ആയിക്കോട്ടെ സാർ അപ്പോൾ നമ്മളെന്തായാലും നോക്കിയിട്ട് സാറിന് വേണ്ടപോലെ ചെയ്ത് തരാം സാറെത്തുന്നതിനൊരു രണ്ട് ദിവസം മുമ്പ് എന്നെയൊന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കറക്ട് ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് ഫിഷ് ഐറ്റംസ് ഏതൊക്കെയാണ് വേണ്ടത് അതൊക്കെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങള് പേയ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം ഓക്കെ തേങ്ക് യു സർ